ആ ചേട്ടാ എത്ര രൂപയായി നൂറ്റമ്പതോ ആ ഓക്കേ കാർഡ് എടുക്കുമോ ഇല്ല ക്യാഷൊന്നും കയ്യിൽ പിടിക്കലില്ല ഞാൻ കൂടുതൽ നോൺ പേയ്മെൻറ്റ്സാണ് യൂസ് ചെയ്യാർ ആ ആ വല്ല ഫോണിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചേട്ടൻ്റെ കയ്യിൽ ലൈക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെ എന്തെങ്കിലും ആ ഗൂഗിൾ പേ ഉണ്ടല്ലേ ആ ഓക്കേ എന്നാൽ സ്കാനർ കാണിച്ച് താ ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല ഇപ്പോൾ ഒരു വിധ കറിലൊന്നും ഐ മീൻ ഊബറിലൊന്നും ഇപ്പോൾ ഇതില്ല എന്ത് ഈ സ്കാന്നറിൻ്റെ സെറ്റപ്പില്ല ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തണതില്ല ക്യാഷ് ഓൺ ക്യാഷ് കൊടുത്ത രീതിയിൽ പോണ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ആ അത് കൊണ്ടാ ഞാൻ ചോദിച്ചത് ഉണ്ടല്ലേ ചേട്ടന്റെ ഉണ്ടല്ലേ ചേട്ടൻ ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഫോൺ പേയും ഗൂഗിൾ പേയും യൂസ് ചെയ്യുന്നുണ്ടല്ലേ ആ ഓക്കേ ഓക്കേ ഞാൻ കൂടുതലും കാണലില്ല ഒരു വിധത്തിലും വണ്ടിയിലൊന്നും കാണലില്ല അതാ ഞാൻ ഏറെ ചോദിക്കാൻ കാരണം കേട്ടോ സോറി ആ അതെ അതെ അതെ ഇനിയിപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ കിട്ടില്ലേ നമുക്കിപ്പോൾ ഊബറിൽ ബുക്ക് ചെയ്യാൻ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെ ചേട്ടനെ ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടില്ലേ ആ ആ അതെ ഞാൻ ക്യാഷ് കയ്യിൽ വെക്കില്ല കൂടുതലിങ്ങനെ ഫോണിലായിരുന്നു അപ്പം ഇനി അങ്ങനെത്തൊരു ചേട്ടനെ വിളിച്ചാൽ കിട്ടില്ലേന്ന് ചോദിക്കുക ആണ് ആ മതി മതി ഓക്കേ ഓക്കേ എന്നാ ചേട്ടൻ നമ്പറ് തന്നിട്ട് ചേട്ടൻ തന്നാൽ മതി ആ ആ ഓക്കേ ഓക്കേ താങ്ക് യു ചേട്ടാ താങ്ക് യു ചേട്ടാ താങ്ക് യു ഓക്കേ ക്യാഷ് അയച്ച് തരാം കെ കേട്ടോ ഓക്കേ ശരി